വളരെ ചെറുപ്പം മുതൽ തന്നെ കരകൗശല വസ്തുക്കളോട് എനിക്ക് വളരെ താല്പര്യമുണ്ടായിട്ടുണ്ട് താല്പര്യമുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് നമ്മൾ ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചിരട്ട കൊണ്ടൊക്കെ ചെറുപ്രായത്തിൽ ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന വസ്തുക്കളൊക്കെയാണ് പൂച്ചക്കുട്ടികൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചിരട്ട വെച്ച് ഉണ്ടാക്കുന്ന രീതി ഉണ്ടായിരുന്നു ആ കുട്ടികളെ ആ പ്രായത്തിലുള്ള ഞങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളെല്ലാം കൂടെ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള വസ്തുക്കളൊക്കെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ തന്നെ നമ്മൾ പേപ്പർ കൊണ്ട് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെടികളുടെ കമ്പുകളും ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ വസ്തുക്കൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് പാഴ്വസ്തുക്കൾ ഉപയോഗിക്കുമ്പോളത്തേക്ക് അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മുടെ പറമ്പിൽ വെറുതെ അലക്ഷ്യമായിട്ട് കളയാതെ നമുക്ക് അത് ഉപയോഗിച്ച് കുപ്പികളും ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ പല പല കാര്യങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വീടിനകത്തും ഇങ്ങനെയൊക്കെ ഉള്ള ഈ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുതന്നെ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കരകൗശല വസ്തുക്കളൊക്കെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോളത്തേക്ക് നമ്മുടെ പാഴ് വസ്തുക്കൾ നമുക്ക് നശിപ്പിക്കാതെ ഈ അല്ലെങ്കിൽ പുറത്ത് അലക്ഷ്യമായിട്ട് ഇടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നാലാളുകൾ മ മനസ്സിലാകാത്ത രീതിയിൽ ആളുകൾ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമ്മൾ അറിയാൻ മേലാത്ത രീതിയിലേക്ക് നമുക്ക് അതുപോലെയുള്ള വസ്തുക്കൾ നമുക്ക് സൃഷ്ടിച്ടുച്ചെക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അത് ചെറുപ്പം മുതലേ അങ്ങനെയുള്ളൊരു ശീലം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു രൂപത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകാറുണ്ട്